ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പല രീതിയിലുള്ള നമുക്ക് ഉല്ലാസ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ടും പല രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെയുണ്ട് ഇപ്പോൾ നമ്മൾ ബീച്ചിലാണെങ്കിൽ ബീച്ചിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബീച്ചിൽ നമുക്ക് കുളിക്കാനും അങ്ങനത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഉല്ലാസ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ പല രീതിയിലുള്ള പാർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പം സരോവരം പാർക്ക് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള പാർക്കുകളും കാര്യങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്നായിട്ട് ഈ കായികപരം കളികൾ ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് സൈഡിലൊക്കെ വോളിബോളും ഫുട്ബോളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ടർഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തിയേറ്ററുകൾ തിയേറ്ററുകളിലാണ് മെയിനായിട്ട് നമ്മൾ വിനോദത്തിനൊക്കെ പോകുന്നത് ഇപ്പോൾ കോർണർ എന്നു പറഞ്ഞിട്ടുള്ളൊരു തിയേറ്റർ ഉണ്ട് പിന്നെ സരിത എന്നു പറഞ്ഞ തിയേറ്ററ് അങ്ങനെ പല രീതിയിലുള്ള തിയേറ്ററ് കാര്യങ്ങളൊക്കെ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആൾക്കാർ നല്ല പടങ്ങൾ വരുന്നതിനനുസരിച്ച് ആൾക്കാർ അതെല്ലാം കാണാൻ വേണ്ടി പോവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അതൊക്കെ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഇപ്പോൾ നമുക്ക് ഉത്സാഹപെടുത്തുന്ന നമ്മളെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും തിയേറ്ററുകളിലൊക്കെ പോവുന്നത് ഇപ്പോൾ ഓരോ പൂന്തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ കാണാൻ വേണ്ടി പോവും